അതെ വയനാട് ടൂറിസ്റ്റ് ഏജൻസി അ ഓക്കെ വായനാടിൽ പൂക്കോട് ഉണ്ട് പടിഞ്ഞാറത്തറ ഡാം ഉണ്ട് പിന്നെ ലക്കിടി ഉണ്ട് തിരുനെല്ലി ടെംപിൾ ഉണ്ട് കുട്ടികൾക്കൊക്കെ പടിഞ്ഞാറത്തറ ഡാമിൽ ആണെങ്കില് നിങ്ങൾക്ക് വലിയവർക്ക് ആണെങ്കിലും ആസ്വദിക്കാൻ പറ്റും കുറേ നടന്നിട്ടൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ആണെങ്കിൽ കളിക്കാൻ ചെറിയ പാർക്കുകൾ ഉണ്ട് വെള്ളത്തിൽ കളിക്കാൻ ആണെങ്കിലും അങ്ങനെ ഉള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഇതും ഉണ്ട് പിന്നെ റൂമുകൾ ആണെങ്കിലും പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് അധികം പൈസ ഒന്നും ഇല്ലാണ്ട് ഉള്ള റൂമുകൾ ഉണ്ട് അവിടെ അടുത്ത് തന്നെ

വാട്ടർഫാൾസ് അതെ അതും ഉണ്ട് അത്യാവശ്യം എല്ലാ നിങ്ങൾ ഇവിടെ വന്നിട്ട് വിളിച്ചാ മതി പിന്നെ അമ്പലങ്ങൾ അങ്ങനെ ഒക്കെ സന്ദർശിക്കാൻ അതെ മറ്റേ നിങ്ങൾ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ സന്ദർശിക്കാനുള്ള ഇപ്പോൾ അധികം അങ്ങനെ അധിക ദൂരമൊന്നും ഉണ്ടാവില്ല പടിഞ്ഞാറത്തറ എന്നൊക്കെ ഒരു അറുപത് കിലോമീറ്റർ ഒരു ഇത് ഉണ്ടാവുകയുള്ളു ഒരു പന്ത്രണ്ട് വരെയാണ് നട തുറക്കുന്ന സമയം പിന്നെ ഈവെനിംഗ് ആണെങ്കിൽ പിന്നെ വൈന്നേരം ഒരു നാലു മണിക്ക് നട തുറന്നിട്ട് എട്ട് മണി ഒക്കെ ആകുമ്പോൾ അടയ്ക്കുക പിന്നെ ഇങ്ങനെ ബലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നിർത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് അവിടെ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല അ അതെ നിങ്ങൾ അപ്പോൾ കുറെ പേരായിട്ടാണോ വരുന്നത്

എങ്ങനെ നിങ്ങള് സ്വന്തം വണ്ടിയിലാണോ വരുന്നത് അതെ താമസ്സസൗകര്യം തിരുനെല്ലി ആണെങ്കിൽ അടുത്തടുത്ത് വീട് പോലെയുള്ളതുണ്ട് അല്ലാണ്ട് നമുക്ക് കോട്ടേജുകളായിട്ട് കിട്ടും അവിടെയാണ് ഹോട്ടലുകൾ എല്ലാം അടുത്തുണ്ട് പിന്നെ അമ്പലത്തില് നമുക്ക് നേരത്തെ തൊഴണെങ്കിൽ നമ്മളവിടെ താമസിച്ച് പിറ്റേ ദിവസം തൊഴാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെത്തന്നെ താമസിച്ചു അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ തിരുനെല്ലി തന്നെ അമ്പലത്തിൽ തന്നെയാണെങ്കിൽ ഒരു പതിനൊന്ന് മണി രാവിലെ ഒരു ആറ് മണി തൊട്ട് പതിനൊന്ന് പതിനൊന്നര വരെ രാവിലത്തെ പ്രഭാത ഭക്ഷണം അവിടെ ഫ്രീയായിട്ട് കൊടുക്കും തിരുനെല്ലി അമ്പലത്തില് അതെ അതെ അമ്പലത്തില് ഭക്ഷണം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അവിടന്ന് കഴിക്കാം പിന്നെ ഉച്ചത്തെ ആണെങ്കിൽ ഞായറഴ്ച്ച ഏതോ ഒരു മാസത്തില് ഒന്നാം തിയ്യതി ഭക്ഷണം ഫ്രീയാണ് അപ്പോൾ മാം എന്തായാലും വിളിച്ചാൽ മതി വരുമ്പോൾ വിളിച്ചാൽ മതി അതെ ഓക്കെ താങ്ക്യൂ മാം